ആടുജീവിതം ബെന്യാമിനെഴുതിയ കഥയാണ് നജീബായിരുന്നു ഇതിൻ്റെ കഥാപാത്രം ഇതൊരു സംഭവകഥയാണ് മരുഭൂമിയിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് മൂന്നു നാല് വർഷത്തെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടിലൂടെ ആടുകളുടെ ഇടയിലാണ് ഇയാൾ പെട്ടുപോയത് ഇയാൾക്ക് കുളിക്കാനും നനയ്ക്കാനും പോലും സാധിച്ചിരുന്നില്ല നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു സംഭവ കഥയാണിത് ഈ കഥയിലൂടെ നമുക്ക് കാണുമ്പോൾ ഈ മനുഷ്യനിലൂടെ നമുക്ക് ഇത് കഷ്ടപ്പാടുകൾ കാണുമ്പോൾ മനസ്സലിവ് തോന്നും തോന്നുന്നുണ്ട് ഇതിലൂടെ അയാൾ സഹനത്തിൻ്റെ വഴി പഠിച്ചു മരുഭൂമിയിൽ നിന്ന് നടന്ന് രക്ഷപ്പെട്ട് പിന്നീട് ഇയാൾ വന്നതിൻ്റെയാണ് ഈ സിനിമയായി മാറിയത്

പ്രതികൂല സാഹചര്യങ്ങളിലൂടെയൊക്കേയും ഇതിൽ ഈ സിനിമയിലൂടെയൊക്കെ കടന്നുപോകാൻ സാധിച്ചു ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ ഈ സിനിമയിലൂടെ നമ്മളും മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കഷ്ടപ്പാടുകളെല്ലാം സഹനത്തിലൂടെ കാണുവാനും ഇത് സിനിമ വെറുമൊരു സിനിമയല്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഥയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൃഗങ്ങളുടെയൊക്കെ ജീവിതം ഇതുപോലെ കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നത് ഇതും നമുക്കും ഒരു ജീവിതത്തിൽ ഒരു പാഠമാകാനായിട്ട് ഈ സിനിമ നമുക്ക് ഉപകരിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു മക്കളും പ്രതികൂല സാഹചര്യത്തെ തരണം ചെയ്യാനല്ല സാധിക്കുന്നത് സന്തോഷത്തിലൂടെയും സുഖഭോഗങ്ങളിലൂടെയൊക്കെയാണ് മനുഷ്യൻ ഇന്ന് കടന്നു പോകുന്നത് ഈ സിനിമ ഈ സിനിമ കാണുമ്പോൾ മക്കളുടെ ചെറുപ്പക്കാരായ മക്കളിൽ ഒത്തിരിയേറെ മനസ്സലിവ് തോന്നാനും അത് അതിലൂടെ ദൈവത്തെ അറിയാനും മക്കൾക്ക് സാധിക്കട്ടേയെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഇതുപോലുള്ള നല്ല നല്ല സിനിമകൾ ഇനിയും വരാനായിട്ട് ഇടയാകട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു